ഹലോ ആ സ്പൈസി റെസ്റ്റോറൻറ്റ അല്ലെ ആ ഞാൻ അമ്പൂരി പഞ്ചായത്തിലെ മായത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത് ആ ഇന്ന് റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടോ ആ അപ്പോളെനിക്ക് വൈകുന്നേരത്തെ വൈകുന്നേരത്തേക്ക് കുറച്ച് ഭക്ഷണം ആവശ്യമുണ്ട് ഒരു പത്ത് പെറോട്ടയും ഒരു അഞ്ച് ചപ്പാത്തിയും രണ്ട് ചില്ലി ചിക്കനും നിങ്ങൾ കൊടുത്തുവിടുവല്ലോ ഓക്കേ